ഞാൻ എല്ലാ രീതിയിലുള്ള പാട്ടുകളും കേൾക്കാറുണ്ട് ഇന്ത്യൻ പാട്ടുകൾ ടർക്കിഷ് പാട്ടുകൾ ഇംഗ്ലീഷ് പാട്ടുകൾ എല്ലാ രീതിയിലുള്ള പാട്ടുകളും ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് ഇന്ത്യയിൽ തന്നെ തമിഴ് ആയാലും മലയാളമായാലും ഹിന്ദി ആയാലും ബംഗാളി ആയാലും പഞ്ചാബി ആയാലും തെലുങ്കു ആയാലും കന്നഡ ആയാലും ഒഡീഷ ആണെങ്കിലും ബംഗാളി ആണെങ്കിലും എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള പാട്ടുകളും ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകർ ആരാണെന്ന് വച്ചു കഴിഞ്ഞാൽ വീക്കെന്റിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാട്ടുകൾ ഇഷ്ടമാണ് പാട്ടുകൾ ഇഷ്ടമാണ് യേശുദാസിന്റെ പാട്ടുകൾ ഇഷ്ടമാണ് കെ എസ് ചിത്രയുടെ പാട്ടുകൾ ഇഷ്ടമാണ് പിന്നെ പ്രാദേശികമായിട്ടുള്ള പാട്ടുകളുടെ രീതിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാടൻപാട്ടുകൾ അല്ലെങ്കിൽ തിരുവാതിര പാട്ടുകൾ അങ്ങനെ വഞ്ചി വഞ്ചിപ്പാട്ടുകൾ അങ്ങനെ കുറെ രീതിയിലുള്ള പാട്ടുകളുണ്ട് വഞ്ചിപ്പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വഞ്ചി അതായത് വള്ളംകളി നടക്കുന്ന സമയം നാടൻപാട്ടുകളെന്നു പറഞ്ഞാൽ അമ്പലങ്ങളിലുണ്ടാകുന്ന ആചാരങ്ങൾക്ക് അനുസരിച്ച് വീടുകളിലൊക്കെ നടത്തപ്പെടുന്നുണ്ട് പിന്നെ തിരുവാതിരപ്പാട്ടുകളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിരയുടെ സമയത്ത് ധനുമാസത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്